ഓഹ് ഞാനൊരുപാട് പാട്ടു കേൾക്കുന്ന ഒരാളാണ് എനിക്ക് റൊമാൻ്റിക്ക് സോങ്ങ്സ് മെലഡി സോങ്ങ്സ് അതുപോലെ ഫാസ്റ്റ് സോങ്ങ്സ് സിനിമാറ്റിക്ക് സോങ്ങ് അതുപോലെ ആരാധന ആരാധനയുമായി ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകൾ അതൊക്കെ എനിക്കിഷ്ടമാണ് ഇഷ്ടപ്പെട്ട ഗായകർ ആരൊക്കെയാണെന്നു ചോദിച്ചാൽ ഷാൻ റഹ്മാൻ ശ്രേയ ഘോഷാൽ അതുപോലെ ചിത്ര യേശുദാസ് വിനീത് ശ്രീനിവാസൻ ഇവര് പാടുന്ന പാട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെതന്നെ പ്രാദേശികപ്പാട്ടുകളും എനിക്ക് അതുപോലെ ഇഷ്ടമാണ് ഹിന്ദി സോങ്ങ്സ് അതുപോലെ തമിഴ് സോങ്ങ്സ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് ഇപ്പോൾ മലയാളം സോങ്ങ്സിനേക്കാളും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് അതൊക്കെയാണല്ലോ കേൾക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ ആ രീതിയിലുള്ള പാട്ടുകളാണ് ഇഷ്ടം അതുപോലെതന്നെ ഹിന്ദിയിലും ഒരുപാട് ഗായകരുണ്ട് പിന്നെ എ ആർ റഹ്മാൻ പിന്നതുപോലെ സർ അർജിത്ത് സിംഗ് ആത്തിഫ് അസ്ലം ഇവരൊക്കെ ഹിന്ദി സോങ്ങിനെ ഹാഹക്കർ ഇവർ ഇവരേയും എനിക്കിഷ്ടമാണ്